കേരളം സന്ദർശിക്കുമ്പോൾ ഇപ്പോൾ വിനോദസഞ്ചാരികൾക്ക് വാങ്ങാൻ കഴിയുന്ന ഒരുപാട് വസ്തുക്കൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം തുണിത്തരങ്ങൾ ആഭരണങ്ങൾ അതൊക്കെ വിനോദസഞ്ചാരികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഇപ്പോൾ പുറമേ ഉള്ളത് അതായത് നമ്മുടെ രാജ്യത്തിന് പുറമേയുള്ള പുറം രാജ്യത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തന്നെ അവർ കൂടുതലും ജീൻസ് ടോപ്പ് അങ്ങനത്തെ വസ് വസ്ത്രങ്ങളൊക്കെയാണ് അപ്പം അവർക്ക് ഇവിടെ കേരളത്തിൽ വരുമ്പോൾ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ കാണുമ്പോൾ അവർക്കൊരു പിന്നെ ആകാംഷയും അത് ഇടാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിപ്പം തുണിത്തരങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ചില സായിപ്പന്മാരൊക്കെ കണ്ടിട്ടുണ്ടാകും നമ്മൾ ചുരിദാർ അതുപോലെ ഇവിടെ വന്നിട്ട് ചുരിദാർ അതുപോലെ തന്നെ സാരി കാര്യങ്ങളൊക്കെ ഉടുത്തിട്ട് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ആണുങ്ങളാണെങ്കിൽ മുണ്ട് ഷർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓണത്തിന് ഓണപ്പരിപാടി കാര്യത്തിനൊക്കെ പങ്കെടുക്കുന്നതൊക്കെ നമ്മളൊരുപാട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആഭരണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ആഭരണങ്ങളും പുറം രാജ്യങ്ങളിൽ നിന്ന് ആഭരണങ്ങൾ വളരെ കുറവാണ് ഇപ്പം സ്വർണ്ണാഭരണങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പം അതൊക്കെ കാണുമ്പോൾ അവർക്ക് വലിയ ഒരു ഇത് തന്നെയാണ് അവർക്ക് മേടിക്കാനുള്ളൊരു താത്പര്യം അതുപോലെ തന്നെ മൺപാത്രങ്ങൾ ഇപ്പം മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന പത്രങ്ങൾ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് കാണാനും അത് മേടിക്കാനും ഒരുപാട് പിന്നെ ആൾക്കാർ വരുന്നുണ്ട് ഇപ്പം കയറ് കരകൗശല വസ്തുക്കൾ നിലവിളക്ക് പിന്നെ കഥകളി മുഖം മൂടികൾ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ വിനോദസഞ്ചാരികൾക്ക് വാങ്ങാൻ കഴിയുന്ന സാ പ്ര സാധനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്